എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏഴ് ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരത്തീ അറുന്നൂറ്റി പന്ത്രണ്ട് അഞ്ച് ലക്ഷത്തി നാൽപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒരു ലക്ഷത്തി അൻപത്താറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന്